എൻറ്റെ ജീവിതകാലത്ത് സംഭവിച്ച കുറച്ച് മാറ്റങ്ങളെ കുറിച്ച് പറയാനാണെങ്കിൽ പ്രധാനമായും മൂന്ന് മാറ്റങ്ങളാണ് എൻറ്റെ ജീവിതകാലത്ത് ഈ ലോകത്തും ഈ സാങ്കേതിക വിദ്യക്കും സംഭവിച്ചിട്ടുള്ളത് അതിലാദ്യത്തേതാണ് മൊബൈൽ ഫോണിൻറ്റെ ഉപയോഗം ചെറിയ കീ പേഡ് ഫോണുകളിൽ നിന്നും ഉത്ഭവിച്ച് അത് ഇപ്പോൾ ടച്ച് സ്ക്രീൻ മൊബൈൽ ഫോണുകളിലേക്ക് മാറിയിരിക്കുന്നു അഥവാ സ്മാർട്ട് ഫോണെന്ന വിലയ്ക്ക് മാറിയിരിക്കുന്നു അതിൽ ലോകത്തെ എല്ലാവരുടെയും ജീവിതത്തേയും നന്നായി ബാധിച്ചിട്ടുണ്ട് നല്ലരീതിയിലാണെങ്കിലും അല്ലെങ്കിൽ മോശം രീതിയിലാണെങ്കിലും അതിന്റെ നല്ല ഗുണങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് ഈ ലോകത്തിൻറ്റെ ഏത് മൂലയ്ക്ക് നിന്നും എല്ലാ വിവരങ്ങളും അറിയാൻ സാധിക്കും അതിൻറ്റെ മോശ ഗുണങ്ങളെ പറ്റി പറയുവാണെങ്കിൽ അതിനു അഡിക്ഷൻ എന്നൊരു പ്രശ്നമുണ്ട് അല്ലെങ്കിൽ റേഡിയേഷൻ എന്നൊരു പ്രശ്നം കൂടിയുണ്ട് ഈ രണ്ടാമത്തേതാണെങ്കിൽ ഡിജിറ്റൽ കറൻസി ഇപ്പോൾ നോട്ടുകളുടെ ഉപയോഗം പ്രധാനമായും വളരെ കുറഞ്ഞിരിക്കുന്നുണ്ട് എന്ന് നോട്ടുകള് തീരെ ഉപയോഗിക്കുന്നു തന്നെയില്ല ഇപ്പൊൾ മൊത്തം ഗൂഗിൾ പേ യു പി ഐ ട്രാൻസാക്ഷൻസാണ് അതെൻറ്റെ ജീവിതത്തെ എങ്ങനെ ബാധിച്ചു എന്ന് ചോദിച്ചാൽ പ്രധാനമായും ബസ്സുകളിൽ പോകുമ്പോളൊക്കെ കൈയിൽ പൈസ ഉണ്ടാവാറില്ല ബസ്സിൽ യു പി ഐ യോ ഒന്നും തന്നെ വർക്ക് ആകുകയുമില്ല ഇതെന്നെ പോസിറ്റീവായിട്ട് എങ്ങനെ ബാധിച്ചു എന്ന് ചോദിച്ചാൽ എനിക്ക് ഒരു പൈസ കൈയ്യിൽ കൊണ്ട് നടക്കണ്ട ആവശ്യമില്ല പിന്നെ ഒന്നുള്ളത് ആർട്ടിഫിഷൽ ഇൻറ്റലിജെൻസ് ആണ് ആർട്ടിഫിഷൽ ഇൻറ്റലിജെൻസ് എന്ന് പറഞ്ഞാൽ നമ്മള് നിത്യജീവിതം മൊത്തം എളുപ്പമാക്കാൻ വേണ്ടിയുള്ള സാധനമാണ് ആർട്ടിഫിഷൽ ഇൻറ്റലിജെൻസ് ഇത് മൂലം നമുക്ക് എല്ലാം ബോ റോബോട്ടിക്സ് ന്റെ സഹായത്തോടെ ചെയ്യാൻ സാധിക്കും അതിൻറ്റെ ഒരു ദൂഷ്യ വശം എന്താന്ന് വെച്ചാൽ മനുഷ്യൻറ്റെ സ്കിൽസ് നഷ്ടപ്പെടാനുള്ള സാധ്യത വളരേ കൂടുതലാണ്